എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആദ്യ ഫോൺ എന്നു പറയുന്നത് ഒരു നോക്കിയേടെ ബേസിക്ക് സെറ്റായിരുന്നു അതിനു വളരെ അധികം ഭാരം ഉണ്ടായിരുന്നു ടച്ച് ഒന്നും അല്ലായിരുന്നു സാധാരണ കീപാഡായിരുന്നു നമ്മൾ ഞെക്കുന്ന കീപാഡ് അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഫോണ് അതിനു ശേഷം ഞാന് ഒരു പുതിതായിട്ട് ഇപ്പം ഈ അടുത്തെടക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയിരുന്നു അത് ആൻഡ്രോയിഡിൻ്റെ സാങ്കേതിക വിദ്യ ആണ് അതിൽ പ്രവർത്തിക്കുന്നത് അത് ആ അതിൻ്റകത്ത് എല്ലാ പുതിയ കാര്യങ്ങളും അതിന്റെ അകത്ത് ഉണ്ട് നമുക്ക് വാട്സ്ആപ്പ് ആ പോലെ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് സ്മാർട്ട് ഫോണിലെ സാങ്കേതികവിദ്യ മാറുക എന്നു പറഞ്ഞാൽ ഓരോ ജനറേഷൻ അനുസരിച്ച് അത് മാറി കൊണ്ടിരിക്കുക അല്ലേ പണ്ട് ഉണ്ടായിരുന്ന ഒരു സാങ്കേതികവിദ്യ ഒന്നും അല്ലല്ലോ ഇപ്പോൾ ഉള്ളത് അത് നല്ല ഉപകാ ഇപ്പം പുതിയ ഓരോ കണ്ടുപിടുത്തങ്ങളിലൂടെ അതെല്ലാം മാറി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഐഫോണിനൊക്കെ ആണെങ്കിൽ തന്നെ ഓരോ പുതിയ തരം ടെക്നോളജികളക്കെയാണ് അതിൻ്റെ അകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത് പണ്ടൊന്നും നമുക്ക് ഫോണിൽ കൂടെ ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുവോ ഒന്നും പറ്റത്തില്ലായിരുന്നു ഇപ്പം നമുക്ക് ഒരു ഡേറ്റ ഡോക്യൂമെൻറ് ടൈപ്പിലക്കെ ആക്കി നമുക്ക് പി ടി എഫില് ആക്കി ഡോക്യൂമെൻറ് ആയിട്ടോ പി ഡി എഫ് ആക്കി പി ടി എഫില് ആക്കിട്ടോ ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടാനും വായിക്കാനും എല്ലാം പറ്റുന്നുണ്ട് അത് വീഡീയോസ് ഒക്കെ ആണേൽ നമുക്ക് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റും വായിക്കാൻ പറ്റും എല്ലാം നമുക്ക് പറ്റും അതൊക്കെ ഇതിൻ്റെ ഒരു വളർച്ചേടെ ഒരു ഭാഗമായിട്ട് തന്നെ സംഭവിച്ചതാണ് പണ്ട് കാലത്ത് ഒന്നും ഇത് നടക്കത്തിലാർന്നല്ലോ ഇപ്പം അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാക്ക് ഒക്കെ ഇവിടെ കോട്ടയത്ത് ഇരിക്കുന്ന ആളുമായിട്ട് കണ്ടോണ്ട് സംസാരിക്കാൻ പറ്റും വാട്സാപ്പിൽ കൂടെ ആ നിമിഷ നേരം കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടും നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കാം അതൊക്കെ വളരെ നല്ല കാര്യം തന്നെ അല്ലേ തീർച്ചയായിട്ടും അതെന്നാണ് എനിക്ക് തോന്നുന്നത്